ഹലോ ഇലക്ട്രീഷ്യൻ ആണോ ഇലക്ട്രീഷ്യൻ ആണോ താങ്കള് താ താങ്കൾക്ക് ബി ക്ലാസ് ലൈസൻസുള്ള ആളാണോ തങ്കളുടെ സ്വന്തമാണോ അതോ വേറെവല്ലോരും ചെയ്യണ്ടത് പ്രകാരമാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പുതിയ കണക്ഷൻ്റെ വയറിങ് മൊത്തം ചെയ്യണം അതിൻ്റെ ഒരു കൊട്ടേഷൻ തരണം അതിൻ്റെ ങേ

കുഴപ്പമില്ല പേര് വി വി തോമസ് കുറ്റിക്കോണം കൊന്നിക്കോട് പി ഒ ഇപ്പോൾ അത് അഡ്രെസ്സ് സമയം എത്രയായി ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടാണേ

അതിനലേ കൊട്ടേഷൻ ചോദിക്കുന്നത് കൊട്ടേഷൻ കൊടുക്ക് നിങ്ങള്

നമുക്ക് ത്രീ ഫേസിൻ്റെ കണക്ഷനാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ത്രീ ഫേസ് ത്രീ ഫേസ് ത്രീ ഫേസ് എസിക്ക് ആവശ്യമുണ്ട് എസിക്ക് ആവശ്യമുണ്ട് മൂന്ന് എസിയേലും പ്രവർത്തിക്കണം അതുകൊണ്ടാണ് ഈ പറയുന്നത് ഉം ഒക്കെ ഒക്കെ പിന്നെ സംസാരിക്കാം ഒക്കെ ബൈ